ഞങ്ങൾ മത മത നേതാക്കൾ പുരോഹിതൻമാരാണ് കാരണം അത് മാർപാപ്പയുടെ നേതൃത്വത്തിലുണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ വിഭാഗമാണ് കത്തോലിക്കാ സഭ ഈ ക്രിസ്തുമതത്തിലെ പ്രമുഖ സ്ഥാനത്തിൽ വഹിക്കുന്നവരാണ് ഈ പുരോഹിതന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് നമുക്ക് എല്ലാ ഞായറാഴ്ച്ചയും നമുക്ക് വേദ വേദ പാഠ ക്ലാസ്സുകളുണ്ട് അതിൽ തന്നെ നമുക്കൊരു പുസ്തകം തന്നിട്ട് അതിനെ നമുക്ക് ഒരു പന്ത്രണ്ട് ചാപ്റ്ററൊക്കെ പഠിപ്പിച്ച് ദൈവത്തിൻറ്റെ കാര്യങ്ങളും ദൈവത്തിൻ എങ്ങനെയാണ് ദൈവം ഉണ്ടാക്കിയതും മനുഷ്യനെ സൃഷ്ടിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചു വെക്കുന്നു പിന്നെ യേശു യേശു ക്രിസ്തുവിൽ സ്ഥാപിതമായ ഏക വിശുദ്ധ സഭയാണെന്ന് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ വൈദികർ നമ്മളെ പുരോഹിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് തിരു സഭയുടെ ഏഴ് പത്ത് കല്പനകളും ആദ്യം തന്നെ രണ്ടായി തിരിച്ചിരിക്കുന്നതുമാണ് അതിൽ തന്നെ തിരുസഭയുടെ കൽപ്പനകൾന്ന് പറയുമ്പോൾ ഞായറാഴ്ച്ചകളിലും കടപ്പെട്ട തിരുനാളിനും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യരുത് പിന്നെ ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കയും ദസറ കാലത്ത് വിസ്തുകുർബാന ഉൾക്കൊള്ളുകയും ചെയ്യണം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കയും ചെയ്യണം വിലക്കപ്പെട്ട കാലത്ത് വിശുദ്ധ ആഘോഷിക്കുകയും തിരു സഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്തുകയോ ചെയ്യരുത് ദേവാലയത്തിനും ദൈവ ശുശ്രൂഷകൾക്കും വൈദ്യക സാക്ഷ്യം ചെയ്യിച്ചിട്ടുള്ള പതവാരവും മറ്റ് ഓഹരികളും കൊടുക്കണം എന്നിങ്ങനെ പറയുന്ന ഓരോരോ കർമങ്ങളാണ് നമുക്ക് വൈദികർ പഠിപ്പിച്ച് തരുന്നത് എല്ലാ കാര്യവും പഠിപ്പിച്ച് തരും മറ്റുള്ളവരിനെ സ്നേഹിക്കണം ഏതൊരു മതവിശ്വാസത്തിലും അങ്ങനെ തന്നെയാണ് ക്രിസ്തീയ മതവിശ്വാസത്തിൽ നമുക്ക് അതിനുള്ള വിശ്വാസവും കരുതലും ഒക്കെ കാണിച്ചു തരുന്നത് പുരോഹിതന്മാരാണ് നമ്മളെ നേർവഴിക്ക് നടത്തുന്നതും ഇവർ പുരോഹിതന്മാരാണ്